ആ ഡ്രൈവറേ അപ്പോൾ നമ്മളെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു ഞാൻ ദൂരയാത്രക്ക് പോയതായിരുന്നു ഞങ്ങളേ കണ്ട് ഇവിടെ എത്തിച്ചു തന്നതുകൊണ്ട് വളരേ സൗകര്യമായി വീട്ടിലെത്തി ഇതിന് മുന്നെ ഞാൻ ഒരു യാത്ര ചെയ്തു പോന്നിട്ട് വണ്ടിയൊന്നും കിട്ടാതെ വളരെ ബുദ്ധിമുട്ടി ഏതായാലും നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല റോഡ് ഇത്ര രാത്രി ആയിട്ടും നിങ്ങൾ വീട്ടിലേക്കെത്തിച്ച് തന്നല്ലൊ അതിന് നന്ദിയുണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെയാണ് നമ്മളെ നാടിന് വേണ്ടത് ഇത്ര ഇതാരേയും അവരെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക ചെയ്തു കൊടുക്കണതാണ് നിങ്ങളെ മനസ്സ് നല്ല മനസ്സാണ് അപ്പോൾ എത്തിച്ചുതന്നതിന് വളരെ നന്ദിയുണ്ട് വീട്ടിൽ ആ ആ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലൊ മഴയത്തൊക്കെ നമ്മൾ കുട ഉണ്ടായിരുന്നില്ല അപ്പോൾ മഴയത്ത് നിങ്ങൾ വണ്ടിയൊക്കെ കിട്ടിയതുകൊണ്ടാണ് എനിക്കിങ്ങോട്ടേയ്ക്ക് എത്താൻ കഴിഞ്ഞത് കേട്ടൊ നന്ദി